അ സിറ്റി മൊബൈൽസായിരുന്നോ ഇഹ് സിറ്റി മൊബൈൽസായിരുന്നോ ആ ആ എനിക്കൊരു മൊബൈൽ നോക്കാനായിരുന്നു ഞാനൊരു ഓപ്പോ ഓപ്പോ എക്സ് ഫൈവ് നോക്കാനായിരുന്നു ആ ഒ എനിക്ക് എക്സ്ചേഞ്ചായിട്ട് നോക്കാൻ പറ്റുമോ ഓപ്പോ ഓപ്പോ ഓപ്പോ ഓപ്പോ ഹലോ ക്ലിയറാണോ കേള്ക്കാമോ

ഹലോ ആ ഇപ്പോള് കേള്ക്കാമോ ക്ലിയറാണോ ആ ഓക്കെ ഓക്കെ ഞാൻ വരാം ഓപ്പോ ഓപ്പോ പോക്കോ പോക്കോ എക്സ് ഫൈവായിരുന്നു ആ അതെ അതെ അതെ എയ്റ്റ് ജി ബിയും റ്റൂ ഫിഫ്റ്റി സിക്സുമായിരുന്നു ആഹ് ആ ആഹ് അല്ല എനിക്ക് ഇത് ചെയ്യാനായിരുന്നു എന്റെയൊരു മൊബൈല് ഇപ്പോള് എൻ്റെ കയ്യലിരിക്കുന്ന മൊബൈലൊരു ലെനോവോ കെ നോട്ടായിരുന്നു ആ എക്സ്ചെഞ്ച് ആ ലെനോവോ കെ നോട്ടായിരുന്നു ആ എക്സ്ചെഞ്ച് ചെയ്യാനായിരുന്നു അതെ അതെ ഞാൻ അതൊരു ഒരു രണ്ട് വർഷം പഴക്കമുണ്ട് അതിനിപ്പോള്

ചെറുതായിട്ട് ബാക്കിലൊരു ചെറിയ ഒരു ബെൻറ്റുണ്ട് അത്രയെയുള്ളൂ അല്ലാതെ വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ടൊന്നുമില്ല ആ അതെ ഈ പോക്കോ എക്സ് ഫൈവിന് എത്രയായിരുന്നു റേറ്റ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ നമുക്ക് ഈ ഡയറക്റ്റ് പേയ്മെന്റ്റ് നടത്തുമ്പോള് വല്ല ഗിഫ്റ്റോ അങ്ങനെ വല്ലതുമുണ്ടോ

ആ പിന്നെ ഈ പോക്കോ എക്സ് ഫൈവിൻ്റെ കൂടെ ഒരു ഡൗട്ടുണ്ടായിരുന്നു ഒരു ചാർജറും കൂടെ കൂടെ ബോക്സിന്റെ കൂടെ കിട്ടുമോ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ ഒക്കെ

ആ ഓക്കെ ഓക്കെ പിന്നെ ഈ ഷോപ്പ് എപ്പോള് മുതല്ക്കായിരുന്നു ഓപ്പൺ

ഓക്കെ ഓക്കെ ഓക്കെ ഞാനെന്നാല് ഈ ബുധനാഴ്ച്ച ഞാൻ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ആ ഓക്കെ താങ്ക് യൂ